ചരിത്രം ഇവിടെയുള്ള എല്ലാ സ്കൂളുകളിലും എല്ലാ സ്കൂളുകളിലെന്ന പോലെ തന്നെ ഇവിടെയും പഠിപ്പിക്കാറുണ്ട് കണ്ണൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ കണ്ണൂരിൻ്റെ വളരെ അധികം ചരിത്രം ഉറങ്ങി കിടക്കുന്ന ഒരു നാടാണ് കണ്ണൂര് അത് പണ്ട് ബ്രിട്ടീഷുകാർ വന്നതു മുതൽ ബ്രിട്ടീഷുകാരുടെ ആക്രമണം മുതൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ ഉള്ള ചരിത്രം കണ്ണൂരിൽ ഉണ്ട് അത് ഉദാഹരണമായിട്ട് ഇവിടെ കണ്ണൂർ കോട്ട ബ്രിട്ടീഷുകാർ പണിത തലശ്ശേരി കോട്ട എല്ലാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഈ കോട്ടകളെ കുറിച്ച് എല്ലാം നമുക്ക് ഹിസ്റ്ററി പാഠപുസ്തകത്തിൽ സ്കൂളുകളിൽ പഠിക്കാനുണ്ട് അതോടൊപ്പം തന്നെ കണ്ണൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുമ്പോൾ കണ്ണൂരിലെ ബീച്ചുകളെ കുറിച്ച് ഏറ്റവും അതായത് ഏഷ്യയിലെ തന്നെ ഡ്രൈവിംഗ് ബീച്ച് ഏറ്റവും വലിയ സ് ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് അത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് അപ്പം തീർച്ചയായും ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണ് കണ്ണൂരുള്ളത് അപ്പോൾ കണ്ണൂരിൻ്റെ ചരിത്രം എന്തായാലും നമുക്ക് എല്ലാവർക്കും പാഠഭാഗങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്